ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രാഷ്ട്രീയക്കാർ വന്നിട്ടു മോഹന സുന്ദര വാഗ് വാഗ്ദാനങ്ങളൊക്കെ നൽകും അതൊന്നും അവർ പാലിക്കാറൊന്നുമില്ല കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് ആദ്യം നമ്മുളുടെ അടുത്ത് വന്ന് ചിരിച്ച് നമ്മുടെ കാര്യത്തിലൊക്കെ നിന്ന് അവര് എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക പണി എടുത്തുകൊണ്ടരികുവന്നെങ്കിൽ അത് വന്ന് സഹായിക്കും ഇപ്പം മീൻ കഴികൊണ്ടിരിക്കുവാണെങ്കിൽ മീൻ കഴുകാൻ വന്ന് സഹായിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യും പിന്നെ ആ വഴിക്ക് അവരെ കാണില്ല അവര് പറയും ഞങ്ങൾ എല്ലാ സംഭവവും റെഡി ആക്കിത്തരാം നിങ്ങൾക്ക് റോഡ് വെള്ളം എല്ലാ കാര്യം ചെയ്തു തരാം എന്നൊക്കെ പറയും പക്ഷെ അവര് ഒരു കാര്യവും ചെയ്തു തരില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അവർ അവരുടെ കാര്യം എന്താ കാര്യം കാണാൻ വേണ്ടീട്ട് കഴുതക്കാലും പിടിക്കാം എന്ന ഒരു രീതിയിലാണ് നിക്കുന്നത് അപ്പോൾ അത് അതൊക്കെയാണ് പ്രശ്നം അതായത് ആ സമയത്ത് അവര് വന്നിട്ട് എന്തുവേണേലും ചെയ്തു തരും ഇപ്പം നമുക്ക് ഇപ്പോൾ പൈസ വേണേൽ പൈസ അടക്കം തരും ഇപ്പൊ ഒരു രണ്ടായിരം രൂപ വേണം എന്ന് പറഞ്ഞാ അയ്യായിരം രൂപ പറഞ്ഞാലും പതിനായിരം രൂപ പറഞ്ഞാലും അവര് കറക്റ്റ് ഒരു വോട്ടിന് വേണ്ടിട്ടു നമുക്ക് അത്രെയും പൈസ തരും പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അവര് നമ്മളെ അവിടുന്ന് അടിച്ച് പിഴിയുകയും ചെയ്യും ഇപ്പോൾ ഇവരൊക്കെ മന്ത്രി ആയികഴിഞ്ഞാല് നമ്മളെ എങ്ങനെങ്കിലും കുടുക്കാൻ ഒക്കെയാണ് നോക്കുക സാധാരണക്കാരെ എങ്ങനെ പിഴിയാൻ പറ്റുമൊ അതിന് അനുസരിച്ച് അവർ പിഴിയുകയും ചെയ്യും ഈ പ്രശ്നങ്ങൾ ഒക്കെയാണ് എന്താ പറയുക തിരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ളത് നമ്മൾ ഇപ്പൊൾ ആര് ആർക്ക് എന്താ പറയുക വോട്ട് ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ ഇന്ന ആൾക്ക് ഒന്നുമില്ല ആര് ആർക്ക് വോട്ട് ചെയ്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയുള്ളത്